ഹലോ ഇത് രവീന്ദ്രൻ ഹലോ ഇത് രവീന്ദ്രൻ ബ്രോക്കറല്ലേ ഇത് ഞാൻ തോമസാണെ വേറെ അമ്പൂര് അമ്പൂരിലുള്ളയ

എനിക്കൊരു സ്ഥലം വേണമായിരുന്നു ഇതു തന്നെ വെച്ചാൽ സ്കൂളിൻ്റടുത്തായിട്ടും അങ്ങനെയൊക്കെ ഒരൂ സിറ്റി ഏരിയയിൽ ഒരൂ അൻപത് ഒരു വീടുള്ള സ്ഥലമാണെങ്കിൽ അതു നന്നായിരിക്കും അല്ലെങ്കിൽ ഒതകത്തില്ല ബജറ്റ് ഒരൂ ഒരം നാൽപ്പത് ലക്ഷം

അതൊക്കെ മൂന്ന് ലക്ഷം രൂപയോ ആ അത്രയും കിട്ടത്തില്ല

അവിടെയാണെങ്കിൽ ഓക്കെ ആകും ആ പക്ഷെ എനിക്ക് സ്കൂ എൻ്റെ എൻ്റെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടു വിടാനൊക്കെ എളുപ്പമായിരിക്കുമതാണ്

മ് ശരിയാണ് എന്നാലും ഇപ്പം കിട്ടാൻ

ആ അയ്യോ ഇപ്പം അർജൻ്റാണ് കാരണം ഇതിപ്പം നല്ല ലോങ്ങായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അമ്പൂരിലെ തുടിയങ്ങോണമാണ് എൻ്റെ സ്ഥലം അപ്പം തുടിയങ്ങോണത്ത് അപ്പോൾ ഇതെന്നറ

കിട്ടത്തില്ല ആ ആ

മ് എന്നാൽ ഞാൻ നോക്കാമേ ഞാൻ അന്വേഷിച്ചിട്ടു പറയാം ഓക്കെ ഓക്കെ ഓക്കെ ശരി എന്നാൽ